ഒരു പാട്ടവതരിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ റെക്കോഡ് ചെയ്യാനൊക്കെയായിട്ട് പോകുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമെന്താണെന്നുവെച്ചാ ൽ ആ പാട്ട് അത് നമുക്ക് പാടാൻ പറ്റുന്നതാണോ നമ്മളുടെ ഇഷ്ടത്തിന് യോജിച്ചതാണോ നമുക്കനുയോജ്യമായ പാട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ ഞാൻ നോക്കുന്നത് മാത്രമല്ല ഒരു പാട്ടെന്നു പറഞ്ഞാലത് കേൾക്കുന്നവനുകൂടി അതാസ്വാദകരമാണോ അപ്പോഴല്ലേ ആ പാട്ടിന്റെ ഒരർത്ഥ പൂർണമാകണത് അപ്പം ചില ഗാനങ്ങൾ പഴയ തൊണ്ണൂറുകളിലെ ഗാനങ്ങളെല്ലാം വളരെ ഇപ്പോഴും അതിന്റെ ആ ഒരു പത്തര മാറ്റിൽത്തന്നെയല്ലേ നിൽക്കുന്നത് ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ടുതന്നെ വലിയ വലിയ ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും എനിക്ക് കൂടുതലും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് അതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും ഞാനൊരിടത്ത് പാടാനായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കുന്നത് തൊണ്ണൂറുകളിലെ പാട്ട് അതായത് ആയിരത്തിത്തൊള്ളായിരത്തി ത്തൊണ്ണൂറുകളിലെ പാട്ടുകൾ ഒരുപാടുപേർ പഴയ ഒരുപാട് വലിയ വലിയ ആൾക്കാർ മലയാള സിനിമയ്ക്കും അങ്ങനെയുള്ള ഇന്ത്യൻ സിനിമയ്ക്കുമൊക്കെ സംഭാവന ചെയ്ത ഒരുപാട് നല്ല ഗാന ഈരടികളുണ്ട് അതാണ് എന്റെ ഹൃദയത്തോടേറ്റവും ചേർന്നു നിൽക്കുന്ന പാട്ടുകൾ ഞാനെവിടെയെങ്കിലും പാട്ടു പാടാനോ അല്ലെങ്കിൽ റെക്കോഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊരു ഒരു രീതിയിലാണ് പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല ഓരോ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പോലുള്ള ഓരോ തരത്തിലുള്ള പാട്ടുകൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി പോപ്പ് സോങ്സായിരിക്കും കുറച്ചുകൂടി ഇഷ്ടം കുറച്ചുകൂടി ഒരു ഒരു ഒരേ ഈരടികളിൽ പോകാതെ മാറ്റി മാറ്റിയുള്ളപോലെ പാട്ടുകൾ അവരുടെ ഇഷ്ടത്തിനനുയോജ്യമായ എന്നാൽ ചെറിയ മെലഡി സോങ്ങുകളാണെങ്കിൽ അതങ്ങനെ ഫാസ്റ്റ് സോങ്ങാണെങ്കിലതങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കിഷ്ടത്തിനനുസരിച്ച് പാട്ടുകൾ പാടാൻ ശ്രദ്ധിക്കാറുണ്ട്